ചെടികളിൽ നിന്നും കൂടുതൽ ഉല്പാദിപ്പിക്കാൻ എന്നു വച്ചാൽ ചെടികളാണോ അതോ പൂക്കളാണോ അത് എനിക്ക് മനസ്സിലായിട്ടില്ല പൂക്കളാണെങ്കിൽ പൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ ആണെങ്കിൽ കറക്ട് വളം ഇടക്കിടയ്ക്ക് അതിന്റെ വേര് വേരെല്ലം വെട്ടി വൃത്തിയാക്കി റിപ്ലാന്റ് ചെയ്യാം അങ്ങനെ ഒക്കെ ചെയ്താൽ കൂടുതൽ പൂ ഉണ്ടാവുകയൊക്കെ ചെയ്യും ചെടി അധികം നഷ്ടം നാശം വരാതെ എടുക്കാൻ സാധിക്കും പിന്നെ കൂടുതൽ ചെടി അതിൽ നിന്നും ഉൽപാദിപ്പിക്കാൻ ആണെങ്കിൽ ഒന്നുങ്കിൽ ബഡ്ഡിംഗ് ലെയറിങ്ങ് പിന്നെ ഗ്രാഫ്റ്റിങ്ങ് അപ്പം ലെയറിങ്ങ് ആണെങ്കിൽ ഒരു ചെടിയിൽനിന്ന് തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഉൽപാദിപ്പിച്ച് ഉണ്ടാക്കി നടാൻ പറ്റും അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ പിന്നേ ബഡ്ഡിംഗ് ബഡ്ഡിംഗ് എന്ന് വച്ചിട്ടുണ്ടങ്കിൽ വേറൊരു ചെടിയിൽനിന്ന് ഒരു ചെടിയിൽ രണ്ടു സൈസ് ഇതൊക്കെ വരുത്തണമെങ്കിൽ ബഡ്ഡിംഗ് അതിനെ ഒരു ചെടിയിൽനിന്ന് കുറേ ഉത്പാദിപ്പിക്കാൻ ആണെങ്കിൽ ലെയറിങ്ങ് ആയിരിക്കും ഏറ്റവും നല്ലത് അതുപോലെന്നെ നല്ല വളവും അതും ഇതുമെല്ലാം ഇട്ടുകൊടുത്ത് ചെടി കൂടുതൽ കരുത്തോടെ വളരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൽ ലെയറിങ്ങ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ലെയറിങ്ങ് തന്നെ കൂടുതൽ ഉൽപാദിപ്പിക്കണമെങ്കിൽ വേറെ വേറെ അതിൽനിന്ന് എടുത്ത് നട്ട് നട്ട് നട്ട് നട്ട് വരണമെങ്കിൽ ലെയറിങ്ങ് ലെയറിങ്ങ് ചെയ്തു വേരുല്പാതിപ്പിച്ചിട്ടു ശേഷം അത് പറിച്ച് നടുക അങ്ങനെ കൂടുതൽ ഉൽപാദിപ്പിക്കാൻ പറ്റും